ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ പീഡനക്കേസുകൾ ഒക്കെയാണ് പീഡന കേസുകളിലൊക്കെ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്താൽ തന്നെ ആറു മാസം ഏഴു മാസം ഒക്കെ ജയിലിൽ കിടന്നിട്ടവർ സിംപിളായിട്ട് പുറത്തുവരും പിന്നെ അവർക്കെതിരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല അങ്ങനെയൊരു അയഞ്ഞ നിയമമാണ് ഇന്ത്യയിൽ ഉള്ളത് പിന്നെയെന്താണെന്നു വച്ചാൽ ട്രാഫിക്ക് നിയമങ്ങൾ പോലീസുകാർ പോലീസുകാർക്കൊക്കെ നിയമങ്ങൾ തെറ്റിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല പക്ഷേ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നു സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോയാലൊക്കെയാണ് ഭയങ്കര കർശനം പിന്നെ കുറേ കടകളൊക്കെ നമ്മുടെ ഈ റിപ്പയർ സാനങ്ങളും മോഡിഫൈ ചെയ്യുന്ന സാധനങ്ങളും വണ്ടിക്ക് മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കടകളിൽ വിൽക്കുന്നുണ്ട് അത് വിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതു ഫിറ്റാക്കാൻ പാടില്ല പിന്നെന്തിനാണ് ഈ കടകൾ തുറന്നു വച്ചേക്കുന്നത് കടകളല്ലേ ഫസ്റ്റ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ കടകളുടെ ഉടമയോട് പറയണം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ വിൽക്കരുത് പറയണം അല്ലെങ്കിൽ നമ്മുടെ മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വാഹനത്തിന് അത് എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരത് എം വി ഡി വന്നു പിടിക്കും പിന്നെ അതൊരു കേസാകും പിന്നെ എന്തിനാണ് ഈ കടകൾ തുറന്നിന് നമ്മൾ മേടിക്കാൻ വേണ്ടിയാണല്ലോ കടകൾ തുറന്നു വച്ചേക്കുന്നത് അങ്ങനെയോരോ പ്രശ്നമാണ് ഇവിടെ പിന്നെ ഏതൊരു കുറ്റവാളിയ്ക്കും ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇത്ര വർഷം ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊലപാതകിയോ എന്തോ ആവട്ടെ ആ കുറ്റകൃത്യം ചെയ്ത ആൾ സിംപിളായിട്ട് ജയിലിൽ നിന്നും ഇറങ്ങിവരും പിന്നെ അവർക്ക് എതിരേ ഉള്ളൊരു നടപടിക്രമങ്ങൾ ഒന്നും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല പിന്നെ അവർ പിന്നെയും ആ കുറ്റകൃത്യങ്ങൾ പിന്നെയും ചെയ്തുകൊണ്ട് തന്നെയിരിക്കും